ഹലോ റെസ്റ്റോറൻ്റ് അല്ലെ ആ എനിക്കൊരു ടേബിൾ ബുക്ക് ചെയ്യാനായിരുന്നു നേരത്തെ ബുക്ക് ചെയ്താൽ എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ സ്പെഷ്യൽ ഓഫറുകൾ ഒരാഴ്ച്ച കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ബുക്ക് ചെയ്യുന്നത് ആ ഒരു പത്തുപേർക്കുള്ള ടേബിളാണ് ബുക്ക് ചെയ്യേണ്ടത് അവിടെ എന്തൊക്കെയാണ് ഫുഡ് ഒക്കെയുള്ളത് ആ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ ഒക്കെയുണ്ടോ

പിന്നെ അവിടെ അക്കോമഡേഷൻ ഒക്കെ കിട്ടുമോ ആ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഡിന്നർ ഒക്കെ വേണം രണ്ടു ദിവസത്തേക്കുള്ള റൂമോ അക്കോമഡേഷനും കൂടി സാധിക്കണം ഓക്കേ അവിടെ എത്രയാണ് ചാർജ് ഒരു ദിവസത്തേക്ക് വരുന്നത് ഓക്കേ നന്ദി